കുട്ടിക്കാലത്ത് ഞാൻ കളിച്ച കളികളെന്നു വച്ചാൽ ഓടി പിടുത്തം ഒളിച്ചും പൊത്ത് അതുപോലെ കുരു കുളംകര കരാ കുളം അതു കളിച്ചിട്ടുണ്ട് കോട്ടി തട്ടി കളിച്ചിട്ടുണ്ട് അക്ക് കളിച്ചിട്ടുണ്ട് ഒരുപാട് നല്ല കളികളൊക്കെ കളിച്ചിട്ടുണ്ട് അതും ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെയായിരുന്നു കളിക്കാറ് സ്കൂളിൽ നിന്നൊക്കെ നമ്മൾ ഓടിപ്പിടുത്തം അല്ലെങ്കിൽ ഒളിച്ചുംപൊത്തൊക്കെ കളിക്കാറുണ്ട് വ്യത്യസ്തയിനങ്ങളും നിയമങ്ങളും എന്നു വച്ചാൽ ഇപ്പോൾ ഒളിച്ചും പൊത്താണെങ്കിൽ ഒരാൾ നൂറ് വരെ എണ്ണും അതിനുള്ളിൽ എല്ലാവരും പോയി എല്ലാ ഓരോ സ്ഥലങ്ങളില്ലും ഒളിക്കും എന്നിട്ട് അയാൾ നോക്കുമ്പോൾ അയാൾ കാണാതെ വന്ന് ഒരു സ്ഥലത്ത് എവിടെയാണോ എണ്ണിയത് അവിടെ പോയി സാറ്റെന്നു പറയും പേര് വിളിച്ചു പറഞ്ഞ് സാറ്റെന്നു പറയും അങ്ങനെയാണ് കളി അതുപോലെ കുളം കര എന്നു പറഞ്ഞാൽ എല്ലാവരും കൂടി വട്ടത്തിൽ നിന്ന് ഒരാൾ അപ്പുറത്തു നിന്ന് കുളം എന്നു പറയുമ്പോൾ ഉള്ളിലേയ്ക്ക് പോകണം കരയെന്നു പറയുമ്പോൾ പുറത്തു ചാടണം അപ്പം ആരാണോ കരയെന്നു പറഞ്ഞ് കുളത്തിൽത്തന്നെ നിന്നാൽ അവർ ഔട്ട് ആ രീതിയിലുള്ള കളികളൊക്കെ കളിച്ചിട്ടുണ്ട് നല്ലൊരു മെമ്മറി ആയിരുന്നു അതൊക്കെ